ഹലോ നെയൻറ്റി എയ്റ്റീസ് നൊസ്റ്റാൾജിക് റസ്റ്റ്റ്റോറെൻറ്റ് കല്പറ്റ ഇന്ന് പിടിയും കോഴിയും ഉണ്ട് പിന്നെ പലതരം ബിരിയാണികളുണ്ട് പ്രോൺസ് ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് പിന്നെ അൽഫാമുണ്ട് മന്തി അൽഫാം മന്തി ഉണ്ട്

രാവിലത്തേക്കാണ് നിങ്ങള് എങ്ങനെയാണ് എത്ര എത്രപേർക്കുള്ള ഫുഡാണ് വീട്ടിലെത്തിച്ച് തരേണ്ടതാണ് പത്ത് പേർക്കുള്ളതോ രാവിലേക്ക് റേറ്റ് എങ്ങനെ എന്ന് വെച്ചാൽ ഒരാൾക്ക് കഴിക്കാൻ ഉള്ളതിന് മുന്നൂറ് രൂപയാണ് പിടിയൻ കോഴിക്ക് വരുന്നത് അപ്പം അത് മാമിനു സമ്മതമാണോ ആ റേറ്റിന് എടുക്കാൻ അത്രയും റേറ്റിന് എടുക്കാൻ കുഴപ്പമൊന്നും ഇല്ലല്ലൊ അ പത്ത് പേർക്കല്ലേ എപ്പഴാണ് എപ്പഴാണ് വേണ്ടത് ഓക്കെ പിന്നെ ഉച്ചത്തേക്ക് പന്ത്രണ്ട് മണിയാകുമ്പോഴല്ലെ നമ്മൾ ഹോം ഡെലിവറി ചെയ്ത് തരണോ കൂടെ എന്തെങ്കിലും എക്സ്ട്രാ ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും

പ്രോൺസ് ബിരിയാണിയുണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് ഫിഷ് ബിരിയാണി ഉണ്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ട് ചിക്കനാ നൂറ് വെജിറ്റബിൾ ബിരിയാണി അല്ലെ ഏത് ദിവസത്തേക്കാണ് മാം ഇരുപത്തേഴാം തിയതി അല്ലെ ഓക്കെ വൈകുനേരത്തേക്കെന്തെങ്കിലും നമ്മൾ ഇവിടെ വിളമ്പാൻ ഉള്ള ആൾക്കാരെ നമ്മള് നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങള് ഏർപ്പാടാക്കി തരണോ അതോ നിങ്ങൾ തന്നെ വേണ്ടാലേ അപ്പോൾ ക്യാഷ് എങ്ങനെ തരുന്നത് ക്യാഷ് അ അഡ്വാൻസ് ഒരു അയ്യായിരം രൂപ ഇടണം ബാക്കി എന്നാല് ഇവിടെ വന്നിട്ട് ചെയ്താൽ മതി മാം ഞങ്ങള് അപ്പത്തേക്കും എത്തിക്കാൻ നോക്കാം ഓക്കെ മാം ഓക്കെ